ഇന്ത്യന് മാധ്യമങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ നല്ല അഭിപ്രായങ്ങള് ഒന്നും ഇല്ല പ്രസക്തമായ വാര്ത്തകളാണ് അതില് വരുന്നതെന്ന് ഞാന് വിചാരിക്കുന്നുമില്ല

വാര്ത്തകളാണ് നല്കുന്നത് പ്രശസ്തമായ ചില പത്രങ്ങള് എന്ന് പറഞ്ഞാൽ മലയാള മനോരമ മാതൃഭൂമി എന്നിവയൊക്കെയാണ്